വ്യാജവാർത്തകൾ ഇഷ്ടംപോലെ അനുഭവത്തിൽ കേട്ടിട്ടുണ്ട് പക്ഷെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഓരോരുത്തരും ഓരോ അവരവരുടെ അവസരത്തിനൊത്ത് അവരവരുടെ നിലനിൽപ്പിനു വേണ്ടിയൊക്കെയാണ് മാധ്യമങ്ങളായാലും പത്രങ്ങളായാലും ഓരോന്ന് പ്രസിദ്ധീകരിക്കുന്നതും വാർത്തകൾ വിടുന്നതും എല്ലാ വാർത്തയും വ്യാജമാണെന്ന് പറയാനില്ല ഇപ്പോൾ തന്നെ നമ്മുടെ ഇലക്ഷൻ സമയത്തായപ്പോള് ഓരോ ചാനലുകളും പറഞ്ഞു ബി ജെ പി വളരെയധികം വോട്ടോടുകൂടി കേരളത്തില് തിരുവനന്തപുരത്ത് വിജയിക്കും അതാണെന്നു പറഞ്ഞു അതെല്ലാം നമ്മൾ വിശ്വസിച്ചു പക്ഷേ സംഭവത്തിലങ്ങനെയല്ല വന്നത് അതവരുടെ ഒരു വ്യാജ വാർത്തയായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാന് പറ്റുകയുള്ളൂ ഏത് ചാനലിലെടുത്താലും പത്രം എടുത്താലും അവരവരുടെ ഇതനുസരിച്ചാണ് വ്യാജ വാർത്തകൾ പറയുന്നതും ഉണ്ടാക്കുന്നതും അത് മുന്നോട്ടു കൊണ്ടുപോകുന്നു അത് അവരുടെ ഒരു ശൈലിയായി ഇപ്പോള് മാറിയിരിക്കുകയാണ് നമ്മള് കേട്ടിട്ട് അത് സത്യമാണോ എന്ന് തിരിച്ചറിഞ്ഞ് പോവാനേയുള്ളൂ നമുക്കൊരു ഒരു കാര്യത്തിനുവേണ്ടി അത് വ്യാജമാണെന്ന് തീരുമാനിച്ചെടുക്കാന് പറ്റില്ല പല പല കാര്യങ്ങളിലൂടെ മനസ്സിലാവുന്നുണ്ട് അത് എല്ലാം വ്യാജമാണെന്ന് ആ ഒരു രീതിയാണ് ഇപ്പോള് നടക്കുന്നത് പല ഇലക്ഷൻ സമയത്തായാലും യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങളായാലും പിന്നെ പരീക്ഷയുടെ കാര്യങ്ങളായാലും എല്ലാത്തിലും വ്യാജവും വരുന്നുണ്ട് സത്യവും വരുന്നുണ്ട് അപ്പോള് നമ്മള് തിരിച്ചറിഞ്ഞ് അത് ശ്രദ്ധിച്ച് ശ്രദ്ധാപൂർവ്വം വായിക്കുക അത്രയേ പറയാനുള്ളൂ